ഹായ് നമസ്ക്കാരം

കേരളത്തിലെന്താ നമുക്കെല്ലാ വർഷവും കുറേ ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഓണം വിഷു റംസാൻ ദീപാവലി അങ്ങനെ കുറേ ആഘോഷിക്കാറുണ്ട് ഹിന്ദുക്കളിൽ ഓരോ മതപരമായിട്ടുള്ള ഓരോ ചടങ്ങുകൾ അനുസരിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യാറുള്ളത് വിഷു മേട മാസത്തിലാണ് വിഷു ഉണ്ടാവുക നമ്മൾ രാവിലെ ഏപ്രിൽ പതിനഞ്ചു പതിനാലു അങ്ങനെയുള്ള ദിവസങ്ങളിൽ വിഷു വരും രാവിലെ കൃഷ്ണനെ കണിവെക്കുക കൈനീട്ടം വാങ്ങുക അതൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ സമൃദ്ധിയുടെ കാലമായിട്ടാണ് നമ്മൾ വിഷുവിനെ കൺസിഡർ ചെയ്യുന്നത് എവിടെ എവിടെ നിന്നാണ് വരണത് ഗോവയിൽനിന്ന് അല്ലേ ഓണത്തിനെക്കുറിച്ചെന്ന് ഉണ്ടെങ്കിൽ ഓണമെന്താ ചിങ്ങമാസത്തിൽ ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുക ഓണം പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരിക്കും ശരിക്കും നമ്മൾ ലാസ്റ്റിലത്തെ ഒരു നാലു ദിവസമാണ് ശരിക്കും ഓണമെന്നു പറയുന്നത് ഒന്നാം ഓണം രണ്ടാം ഓണം എന്ന് പറഞ്ഞിട്ട് തിരുവോണത്തിനാണ് നമ്മൾ പത്താമത്തെ ദിവസമാണ് നമ്മൾ നന്നായിട്ടു ആഘോഷിക്കുക വീട്ടിൽ വലിയ പൂക്കളം ഇടുന്നതും അങ്ങനെയൊക്കെ നമ്മൾ ഫസ്റ്റ് അത്തം തൊട്ടിട്ടു നമ്മൾ പത്തു ദിവസം പൂക്കളം ഇടാറുണ്ട് പക്ഷെ തിരുവോണത്തിനായിരിക്കും നമ്മൾ കുടുതലായിട്ടു ആഘോഷിക്കുന്നതും സദ്യയുണ്ടാക്കുന്നത് വീട്ടില് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപരിപാടികൾ അങ്ങനെയുള്ള ആഘോഷമൊക്കെ നടക്കുന്നത് തിരുവോണത്തെ ദിവസമായിരിക്കും പിന്നെ നാലു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരിക്കും നമ്മൾ തിരുവോണത്തിനാണ് മെയ്നായിട്ടു ഉണ്ടാക്കുക കുറേ വിഭവങ്ങൾ കൂട്ടിചേർത്തിട്ട് അത് കഴിഞ്ഞുകഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കാളൻ ഓലൻ സാമ്പാർ പച്ചടി കിച്ചടി അവിയൽ കൂട്ടുകറി അങ്ങനെ എല്ലാ കറികളും ഉണ്ടാവാറുണ്ട് റൈസ് പായസം ഉണ്ടാവാറുണ്ട് രണ്ടുതരം

ഇപ്പോഴെന്നുവെച്ചാൽ പാലട പായസമാണ് എല്ലാവിടേയ്ക്കും ഫേമസ് ആയിട്ടുള്ളത് പാലട പ്രഥമൻ സേമിയ പായസത്തിന്റെയൊക്കെ ഡിമാൻഡ് പോയി ഇപ്പോൾ പാലട പ്രഥമനാണെന്നു തോന്നുന്നു എല്ലാവരും ചെയ്യുന്നത് പാലട പ്രഥമൻ സേമിയ പായസം പാൽ പായസം അല്ലല്ല അത് അമ്പലത്തിൽ മാത്രം പ്രത്യേകിച്ചു കിട്ടാറുണ്ട് നമ്മുടെ വീട്ടിലൊന്നും സാധാരണ ഉണ്ടാക്കാറില്ല വീടുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടുകയില്ല അമ്പലങ്ങളിൽ ഉണ്ടാക്കണ പായസമാണ് അത് ദീപാവലിക്ക് പണ്ടത്തെ പുരാണങ്ങളനുസരിച്ചു കാട്ടിൽനിന്നു സീതേനെ കൂട്ടിട്ടു രാമൻ നാട്ടിലേക്കു കൊണ്ടുവരുന്ന ഒരു ഐതീഹ്യത്തിൻ്റെ പിന്നിലാണ് അപ്പോൾ നമ്മൾ അവർക്കു വഴി കാണിക്കാൻ വേണ്ടിയിട്ട് വിളക്കുകൾ കത്തിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ലൈറ്റൊക്കെ കാണിക്കുന്നതുകാണാം അപ്പോൾ അതിൻ്റെ ആഘോഷമായിട്ടു നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുക സ്വീറ്റ്സ് കൊടുക്കുക അതിൻ്റെ ഭാഗമായിട്ടു നടത്തുന്നതാണ് ദീപാവലി ആഘോഷം എന്നു പറയുന്നത് വിഷുവിനാണ് ചെയ്യാറുള്ളത് പക്ഷെ ഈ എന്താണ് വെളിച്ചമെന്നു പറയുമ്പോൾ നമ്മൾ വെറുതെ വിളക്കു കത്തിച്ചാൽ മതിയല്ലോ പക്ഷെ കാലം മാറികൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പടക്കം പൊട്ടിച്ചാഘോഷിക്കാൻ തുടങ്ങി എല്ലാവിടേയും ഇപ്പോൾ എല്ലാത്തിലും പടക്കം പൊട്ടിക്കുകയാണല്ലോ ആ ഓക്കേ